പ്രാർത്ഥന ആരാധന ഇതു നമ്മളൊരൂ ക്രിസ്ത്യനായ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രദാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മെയെല്ലാം ഏതു കാര്യം തുടങ്ങുന്നതിനു മുൻപേയും നമ്മൾക്കു പ്രാർത്ഥന അത്യാവശ്യമാണ് അതുപോലെതന്നെ ആരാധന ആരാധന നമ്മൾ വിശു ത്ത കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭൂതി അതായത് നമ്മൾ ദൈവത്തോ ദൈവോമായിട്ട് നമുക്കത് പങ്ക് വെക്കുവാൻ നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ സങ്കടങ്ങളും എല്ലാം ദൈവത്തിൻ്റെ മുൻപിൽ അർപ്പിച്ച് ദൈവത്തോട് ആ യോജിച്ചു നിന്നുള്ള ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ആ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭൂതി അതു പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് അതുപോലെതന്നെ വിശുദ്ധ കുർബാന എല്ലാ ദിവസവും കാണാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് പിന്നെ ജീവിത സാഹചര്യങ്ങൾക്കൊണ്ട് നമുക്കത് സാധിക്കാതെ വരുന്നുണ്ട് അതുപോലെതന്നെ ഈ വിശുദ്ധ കുർബാനയിലുള്ള ആ ഒരനുഭവം നമുക്ക് ജീവിതത്തിൽ എല്ലാ വിശുദ്ധ ഓരോ വിശുദ്ധ കുർബാന കഴിയുമ്പോഴും നമ്മൾ ദൈവവുമായിട്ട് കൂടുതൽ കൂടുതൽ ബന്ധം സ്ഥാപിക്കുകയും അടുക്കുകയും മാണ് ചെയ്യുന്നത് അതു പോലെ തന്നെ കുടുംബ പ്രാർത്ഥന പ്രാർത്ഥന എപ്പോഴും നമ്മൾക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏതു കാര്യം തുടങ്ങുന്നതിനു മുൻപ് നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോഴായാലും നമ്മൾ വീട്ടിൽ എവ് യാത്ര പോകുമ്പോഴായാലും എല്ലാം നമ്മൾ പ്രാർത്ഥിച്ച് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അതു വളരെ വിലപ്പെട്ടതാണ് നമ്മ നമ്മൾ നമുക്ക് ദൈവത്തോടുള്ള പ്രാ ഓരോ ദിവസവും നമ്മളെ നടത്തുന്നത് ദൈവത്തിൻറ്റെ കരുണയും കൊണ്ടും നമ്മുടെ പ്രാർത്ഥനയുടെ ബലം കൊണ്ടുമാണ് കാരണം എൻ്റെ കുടുംബം എന്നു പറയുന്നത് പ്രാർത്ഥനയിൽ വിശ്വസിച്ച് ആ പ്രാർത്ഥനയുടെ ബലം അനുഭവിച്ചു വന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് കാരണം എൻ്റെ സഹോദരന്മാരൊക്കെ അച്ഛനായിട്ടും ഒക്കെ നല്ല നല്ല പോസ്റ്റുകളിൽ ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ട് അതു കൊണ്ടാണ് ഒരനുഭൂതി പ്രാർത്ഥനയുടെ അനുഭൂതി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാണ് അതു പോലെ തന്നെ ആരാധനകൾ നമ്മൾ പള്ളിയിൽ നടത്തുന്ന ആരാധനകളെല്ലാം തന്നെ അതു പോലെ തന്നെ നൊവേനകൾ അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം തോളം മാതാവിനോടുള്ള പ്രത്യേക നൊവേനയും പല വിശുദ്ധന്മാരോടു നമ്മൾ നടത്തുന്ന നൊവേനയും എല്ലാം ജീവിതത്തെ നമ്മളെ ഒരു നല്ല വഴിയിൽ നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ഒരു നല്ല കർത്താവിനെയാണ് നമ്മൾക്കു കാണാൻ അങ്ങനെ കർത്താവിനെ ജീവിതത്തോട് നമ്മുടെ എല്ലാ കാര്യങ്ങളോടും ചേർത്തു പിടിച്ച് പ്രാർത്ഥിച്ചു മുൻപോട്ടു പോകുമ്പോൾ ആ ജീവിതത്തിന് നമുക്കൊരു ലക്ഷ്യമുണ്ടാകും അങ്ങനെ ആ ലക്ഷ്യത്തിൽ നമുക്ക് എത്തിച്ചേരുവാനും സാധിക്കും അതാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടു നമുക്ക് നേടുന്നത് പ്രാർത്ഥനകളില്ലെങ്കിൽ ജീവിതം ശൂന്യമാണ് സംഗതി പ്രാർത്ഥനകൾ മാത്രമാണ് നമ്മുടെ ജീ യഥാർത്ഥ ലക്ഷ്യത്തിലേക്കു നമ്മളെ നയിക്കുന്ന ചൂണ്ട് പലക അതു കൊണ്ട് പ്രാർത്ഥന എപ്പോഴും ഏതു സമയത്തും ദൈവവുമായിട്ടുള്ള സംസാരം അതായത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ഇത് ദൈവത്തോടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മളുടെ പ്രാർത്ഥന അത് എപ്പോഴും ഉണ്ടായിക്കൊണ്ട് ഇരിക്കണം